എന്റെ ചേട്ടാ എത്ര നേരമായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെന്താണ് ഇത്ര നേരായിട്ടും വരാ നമുക്കർ വരാത്തത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അർജന്റായിട്ട് പോകണ്ടത് കൊണ്ടാണല്ലോ നമ്മള് എന്ത് ചെയ്തത് ക്യാബ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇതിപ്പം ഒരു മണിക്കൂറിനടുത്തായി ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ഫ്ലൈറ്റ് മിസ്സാകും എന്തുകൊണ്ടാണ് ഇത്ര നേരമായിട്ട് വൈകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂട എത്രയും വേഗം എത്തുകയും ചെയ്യുക എന്തുവാ എത്തീയിട്ടുള്ളത്ത് എന്താണ് വൈകാൻ കാരണം എന്നുള്ളത് എന്നോട് എന്തായാലും പറയണം കെട്ടോ